പത്രത്തിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട് കലാപരമായ വളർച്ചയ്ക്ക് ഒത്തിരി ഉപകാരം ഉണ്ട് പത്രം പത്രമെന്ന് പറയുമ്പം പണ്ട് മുതലേ തന്നെ ഒരു ഏറ്റവും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു മാധ്യമമാണല്ലോ പത്രം അതിന് ശേഷമാണല്ലോ ടിവിയും അതുപോലെ ഫോണും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ പത്രത്തിലൂടെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് കലാപരമായ വളർച്ചക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും പല തരത്തിലുള്ള അറിവുകളും പരമ്പരാഗത കലകളെ കുറിച്ചും അല്ലെങ്കിൽ പുതിയ പുതിയ തലമുറയിലുള്ള പലതരം കലകൾ അല്ലെ പഴയതുമായിട്ട് ചേർത്തു തന്നെ ചെയ്യാവുന്ന ഒരുപാട് ഉണ്ടല്ലോ കലാപരിപാടി കലകൾ അതെല്ലാം ഒത്തിരി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ട് പ്രാധാന്യം ഉള്ളത് തന്നെയാണ് കാരണം പത്രത്തിലൂടെയാണ് ആളുകൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതും ഇപ്പോൾ പത്രം വായിക്കാൻ ആളുകൾക്ക് ഇപ്പം അളവ് പത്രം വായിക്കുന്നതിനോട് മടിയാണ് ആൾക്കാർക്ക് കാരണം മൊബൈലും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്കിൽ പോലും പത്രങ്ങൾ ഒത്തിരി ജനങ്ങളുടെ കല കലാപരമായ വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും പത്രത്തിലൂടെ വരുമ്പം അത് വീട്ടിൽ ഇരുന്ന് വായിക്കുക്കുകയും അത് അനുസരിച്ചു നോക്കി എല്ലാവരും കൂടെ ചർച്ച ചെയ്തു പിന്നെ ഓരോ പ്രദേശത്തെ ആൾക്കാർക്ക് അത് അവരുടെ അവരുടെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഇതൊക്കെ വച്ചു കൂടുതൽ കലകൾ അഭ്യസിപ്പിക്കാനും അതിനെല്ലാം ഒത്തിരി ഉപകാരപ്പെടും പിന്നെ കുട്ടികളിലൂടെ ആണേലും ഈ പത്ര വായനയിലൂടെ ആ കുട്ടികളും ഓരോന്നൊക്കെ ഓരോ കലകളെ കുറിച്ചു മനസ്സിലാക്കുന്നതും അവർ അതിനെ കുറിച്ചു വിശകലനം ചെയ്യുന്നതും മറ്റും അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു സംസാരിച്ചു ഇങ്ങനെ അത് കണ്ടല്ലോ പത്രത്തിലൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് നോക്കി അങ്ങനത്തെ പഠിച്ചാലോ അങ്ങനെ ചെയ്താലോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ പുതിയ പുതിയ കളികളുടെ ഒക്കെ ആ ഒരു ശൈലിയൊക്കെ മാറി വരുന്നുണ്ടല്ലോ പഴയതിനേക്കാളൊക്കെ കുറച്ചു കൂടെ ഇപ്പം കൂടുതലും ക്ലാസിക്കൽ ഡാൻസിനേക്കാളും ആളുകൾകൊക്കെ ഇഷ്ടം സിനിമാറ്റിക് ഡാൻസ് പോലെയുള്ള അല്ലെങ്കിൽ എന്നാൽ പുതിയ പുതിയ തരത്തിലുള്ള ഡാൻസുകളും ഇതൊക്കെ അങ്ങനത്തെയൊക്കെ ഇഷ്ടം ആൾക്കാർ കുട്ടികൾക്ക് അപ്പം അതിനെ കുറിച്ചൊക്കെ പത്രത്തിലൊക്കെ വാർത്തകളും കാര്യങ്ങളും അ തിനെ കുറിച്ചൊരു പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ അതനുസരിച്ചു കൂടുതൽ ഇപ്പം അതിനെ കുറിച്ചു പഠിക്കുകയും പത്രത്തിലൂടെയൊക്കെ പത്രം വായിച്ചു ആൾക്കാർ കൂടുതൽ പത്രം വായിക്കാൻ അതൊരു പ്രചോദനവും കലകളോട് താല്പര്യമുള്ള ആൾക്കാരാവുമ്പോൾ കൂടുതൽ പത്രം വായിക്കുമല്ലോ അതിനെ കുറിച്ചു അറിയാൻ വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ പത്രം വായനയും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും അത് അതോടൊപ്പം തന്നെ ഈ കലാപരമായ അറിവുകളും ഒക്കെ പ്രദേശത്തെ ആളുകൾക്ക് ഒരുപാട് ഉപകാരമാകും അങ്ങനെ ഒത്തിരി പഴയ ഓണത്തിനുള്ള കലകൾ അതുപോലെ തന്നെ അല്ലാത്ത സ്പോർട്സ് ഈ വല്ല അതുപോലെ ഓണത്തിന് കളിക്കുന്ന പോലെ ഒരുപാട് കളികളുണ്ടല്ലോ അതിനെ കുറിച്ചൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ പഴയ പഴയ പഴയ മാതാപിതാക്കളുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കൊറേ പ്രത്യേകതരം കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓണക്കാലങ്ങളിലൊക്കെ അതിനെ കുറിച്ചൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ വന്നു കഴിയുമ്പം ആ കുട്ടികളാണേലും ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ അതെ കുറിച്ചു അറിയുന്നതും അവർ മനസ്സിലാക്കുന്ന അവർ അതിനോട് താല്പര്യം തോന്നുന്നതൊക്കെ അങ്ങനെ അതിനെ അന്നേരം കൂടുതൽ അവർ അത് പഠിക്കാൻ താൽപര്യം